എൻ്റെ എക്കാലത്തും ഇഷ്ടപ്പെട്ട പാചകരീതി നാടൻ തന്നെയാണ് നാടൻ ഭക്ഷണങ്ങളോടാണ് കൂടുതലും താത്പര്യം നാടൻ കൂട്ടുകൾ വളരേ ആരോഗ്യത്തിനാണെന്നുണ്ടെങ്കിലും ശരീരത്തിനാണെന്നുണ്ടെങ്കിലും വളരേ നല്ലൊരു രീതിയായതുകൊണ്ട് നാടൻ വിഭവങ്ങളിലോട്ടാണ് കൂടുതലും താത്പര്യപ്പെടാറുള്ളത്